ഇപ്പത്തെ കാലത്താണെങ്കിൽ നമ്മുടെ അട്ക്കളയിൽ എലക്ട്രിക് ഉപകര്ണങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അറിയേണ്ട മിക്സിയിൽ ഇട്ടു അരച്ചൊക്കെ എടുക്കാം പണ്ടത്തെ കാലത്താണെങ്കിൽ അരകല്ലിൽ വച്ചു എന്ന ഓരോന്ന് ചതച്ചു അരച്ചു ഇതിൽ എടുക്കുമ്പോഴേക്കും കുറേ സമയം പോവും പിന്നെ ഗ്രെയ്ൻഡർ ആണെങ്കിലും അങ്ങനെയൊക്ക തന്നെ പിന്നെ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഇവിടെ കത്തിച്ചു അതിന് അകത്തേക്ക് വച്ചാൽ മതി പിന്നെ പണ്ടത്തെ കാലത്തെ അടുപ്പൊക്കെ ആണെങ്കിൽ തീ കത്തിച്ചു വിറക് ഉണ്ടാക്കി തീ കത്തിച്ചു കുറേ ടൈം എടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇൻഡക്ഷൻ കുക്കർ ആകട്ടെ എന്താണെങ്കിലും അപ്പം അത് ഗ്യാസിന് പകരമാണ് ഗ്യാസ് സിലിണ്ടറിനൊക്കെ പകരമാണ് ഇൻഡക്ഷൻ കുക്കറ് ഉപയോഗിക്കുന്നത് അതാവുമ്പോൾ അതിനകത്തെ കുറേ ഇതുണ്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ഓരോ സാധനങ്ങൾക്കുള്ള ഇത് ഉണ്ട് ഫ്രൈ ആണെങ്കിൽ ഫ്രൈക്ക് ഉള്ളത് പിന്നെ ടീക്ക് ടീയാണെങ്കിൽ ടീക്ക് ഉള്ളത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ